ഞങ്ങൾ നാളെ ഒരു വിനോദ യാത്രയ്ക്ക് പോവുകയാണ് മലമ്പുഴ ഗാർഡനിലേക്കാണ് വിനോദയാത്ര പോകാൻ ആലോചിക്കുന്നത് നമുക്ക് അതിനായി നിങ്ങളുടെ ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വന്നതാണ് രാവിലെ പോയിട്ട് വൈകുന്നേരം എത്തുകയാണ് നമ്മുടെ വിനോദയാത്രയുടെ ഉദ്ദേശം എത്ര രൂപയാണ് ഒരു ദിവസത്തെ കൂലി ഒരു ക്യാബിൻ്റെ കൂലി എത്രയാണ് ഒരു ചെറിയ ക്യാബ് അതായത് ഒരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്നതിന് സൗകര്യമുള്ള അവരുടെ ലഗേജ് വയ്ക്കാൻ ആവശ്യമുള്ള ഒരു ചെറിയ ക്യാബിന് എത്രയാണ് എത്ര രൂപയാണ് കൂലി അത് കുറച്ചു കൂടുതൽ അല്ലേ ചേട്ടാ കുറച്ച് വലിയ ക്യാബിന് എത്രയാണ് എന്നാൽ ഒരു ആറു പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നതുപോലെ അതിന് എത്രയാണ് കൂലി ഒരു ദിവസം ഇത് കുറച്ച് കൂടുതലല്ലേ നമുക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വരാനാണ് ഈ ചെറുതും വലുതുമായ ഇടത്തരവുമായി ഈ ക്യാമ്പുകൾക്ക് എന്താ ഇത്രയും വലിയ വ്യത്യാസം കൂലിയില് ഇത് കുറച്ച് കൂടുതലാണ് എന്തുകൊണ്ടാണ് ഇത്രയും പൈസയുടെ വ്യത്യാസം വരുന്നത് നമുക്ക് കുറച്ച് രണ്ട് ക്യാമ്പ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പൈസ കുറച്ച് തരുമോ ഒരു നാലു പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ ക്യാബിന് ഇത്രയൊക്കെ വ്യത്യാസമുണ്ടോ കുറച്ചു കൂലി കൂടുതലല്ലേ ഈ രണ്ട് ക്യാബുകളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ കൂലിയുടെ കാര്യത്തിൽ നാലു പേർക്ക് ഇരിക്കാവുന്നതും ആറു പേർക്ക് ഇരിക്കാവുന്നതും